ആ അതെ സൈക്കള് കടയാണ് ഏത് ബ്രാൻഡിൻ്റെ സേക്കിലാ നോക്കുന്നത് ഇവിടിപ്പോൾ ഹെർക്കുലീസിൻ്റെ സൈക്കിൾസ് ഉണ്ട് അതുപോലെ ഹോണ്ടൻ്റെ ഉണ്ട് പിന്നെ കുറച്ച് പുതിയ മോഡൽ ഐറ്റംസ് സൈക്കിൾസും ഇപ്പോൾ ന്യൂ ആയിട്ട് എത്തിയിട്ടുണ്ട് അത് നമ്മൾ ബ്രാൻഡിനനുസരിച്ചിട്ടാണ് കോസ്റ്റ് തീരുമാനിക്കുന്നത് അത് ഇത് വേറെയുള്ള സൈക്കിൾസ് എന്താ ഇപ്പോൾ ഹെെയർക്കുലീസിൻ്റെ മോഡൽസിൽ ഇപ്പം അവൈലബിളായിട്ട് ഉണ്ട് അതുപോലെ മൂന്ന് ഗീറ് അത് മൂന്ന് ടു എ ട്വൻറ്ററി ഫോർ ഗിയറ് വരെ ഉള്ള സൈക്കിൾസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഗീറ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം അപ്പോൾ ഗീറ് ഉള്ളതാണോ അതോ ഗീറ് ഉള്ള ഇല്ലാത്ത നോർമൽ സൈക്കിൾസ് ആണ് സേർന് വേണ്ടത് അപ്പോൾ ഒരു ഏഴ് ഗേറുള്ള സൈക്കിള് അപ്പോൾ കമ്പനി ഹെർക്കുലീസാണോ അതോ വേറെ ഏതെങ്കിലും കമ്പനീസ് സജസ്റ്റ് ചെയ്യാനുണ്ടോ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഹെർക്കുലീസിൻ്റെ ന്യൂ മോഡൽ സൈക്കിൾസ് സെവൻ ഗേർസിൻ്റെ ഒരു സൈക്കിൾ ഉണ്ട് ഇവിടെ അത് ഒന്നുകൂടിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതുപോലെത്തന്നെ നല്ല പെർഫോമൻസും റേറ്റിംഗ്സ് ഒക്കെ ഉള്ള സൈക്കിളാണ് അപ്പോൾ സാറിന് വേണമെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാം നമ്മൾ ഫസ്റ്റ് പ്രൈസ് വെരണത്വരുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് പിന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് സൈക്ക് ആണ് അപ്പം അതിനനുസരിച്ചിട്ട് ഓഫറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ സാർ എത്രയും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതി അതിനനുസരിച്ചുള്ള ഓഫറ് തരാം ബ്രാഞ്ച് വരുന്നത് ആ നമ്മൾ ഇപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട് മണ്ണാർക്കാട് ബ്രാഞ്ച് ഉണ്ട് മണ്ണാർക്കാട് സെൻട്രിൽ തന്നെ നമ്മളെ ഒരു ബ്രാഞ്ച് ഉണ്ട് വേണമെങ്കിൽ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും തരാം അത് സാറെ ആൾക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് അല്ലാതെ എന്തെങ്കിലും സാർന്ന് പറ്റാത്തതായിട്ട് എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് അവിടുന്നുതന്നെ വേറെ എടുക്കാമല്ലോ

ആ ഓക്കെ താങ്ക് യൂ